ശരീരത്തിനും മനസിനും ഒരു ഉന്മേഷം നൽകുന്ന ഒരു കലയാണ് നൃത്തം എന്ന് പറയുന്നത് എനിക്ക് നൃത്തം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്കൂൾ സ്റ്റേജുകളിലൊക്കെ നൃത്തം ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഞങ്ങൾക്ക് അസ്സോസിയേഷൻ്റെ വാർഷികം ഒക്കെ വരുമ്പോൾ നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ട് നൃത്തം ഒരു മനുഷ്യൻ്റെ മനസ്സിനേയും മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന ഒരു കലയാണ് നൃത്തം